ഇന്ത്യയിലെ കർഷകർ കൂടുതലും മരിക്കുന്നത് ഇന്ത്യയിലെ കാലാവസ്ഥ കാരണവും ഇന്ത്യ സർക്കാരുടെ കുറേ പിഴവുകൾ കാരണവുമാണ് ഇന്ത്യയിൽ വളരെയധികം കർഷകർ ആത്മഹത്യ ചെയ്യുന്നു കാരണം വെതറിൻ്റെ ഓരോ പ്രശ്നങ്ങളാണ് കാലാവസ്ഥ കാലമില്ലാതെ മാറി വരുമ്പോൾ കർഷക വിളവുകൾ നാശ നാശത്തിലേക്ക് പോകുന്നു സർക്കാർ അതിന് വേണ്ടി ഉള്ള മുൻകരുതലുകൾ എടുത്താൽ ആ കർഷകർക്ക് വളരെ നല്ലതായിരുന്നു കർഷകർക്ക് സർക്കാർ വഴി കുറേ അധികം പണം എത്തിച്ചാൽ തന്നെ കർഷകർക്ക് വേണ്ടി ഭയങ്കര നല്ലൊരു കാര്യമായിരുന്നു അത് കർഷകർക്ക് വേണ്ട വിളവുകൾ വേണ്ട സമയത്തിനടുക്കാം വെള്ളത്തിന് കുഴപ്പമില്ല പൈസ ഉണ്ടെങ്കിൽ എല്ലാം ചെയ്യാം കർഷകർക്ക് ഒരു പ്രശ്നമില്ലാണ്ട് ജീവിച്ച് പോകാം ഇതൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് നമ്മുടെ സർക്കാർ നമ്മുടെ കർഷകരെല്ലാം മരിക്കുന്നത്